ബൈക്കിംഗ് എനിക്കൊരു ആവേശമാണ് ബൈക്കിംഗ് മേഖലയോട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബൈക്ക് ഫീൽഡ് ബൈക്കിങ്ങ് ഫീൽഡ് വളരെ ഇൻട്രസ്റ്റോടെയാണ് ഞാൻ കാണുന്നത് എനിക്ക് സ്വന്തമായി വണ്ടിയുണ്ട് സ്വന്തമായി വണ്ടി ഉണ്ടങ്കിൽ പോലും ഞാൻ ഒരു ആവേശമായ രീതിയിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ബൈക്കിംഗ് ഫീൽഡ് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ അതാണ് ബൈക്കിങ് ഫീൽഡ് ഞാൻ ഒറ്റയ്ക്കാണേ പോലും സ്വയം യാത്ര ചെയ്യാറുണ്ട് എനിക്കതുകൊണ്ട് ബൈക്കിംഗ് ഫീൽഡിനോട് കൂടുതൽ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് ഉണ്ട് അതുവഴി എനിക്കിത് കൂടുതൽ ഡ്രൈവിങ്ങിനെ കൂടുതലായി എനിക്ക് ബൈക്കിംഗ് മേഖലയെ കൂടുതലായി എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നു എനിക്ക് ബൈക്കിംഗ് മേഖല ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേലയാണ് അതിലൂടെ ബൈക്കിംഗ് മേഖലയെ കൂടുതലായി ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ബൈക്കിംഗ് മേഖല എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനാണെൽപോലും ബൈകിങ് മേഖലയെക്കുറിച്ച് മേഖലയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ യാത്ര വെക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ നല്ലൊരു യാത്ര പോകാനാണ് പോവാനാണ് ഞങ്ങൾ പ്ലാനിട്ടിരിക്കുന്നത് അതുവഴി നല്ലൊരു അനുഭവം ലഭിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്